അങ്ങനെ എൻ്റെ നാട്ടിലങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെയും എൻ്റെ ഓർമയിലങ്ങനെ കുടുംബ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നത് കൂടുതലും എന്തായാലും നമ്മുടെ ഒരു തലമുറയിൽ എഹ് ഞങ്ങളുടെ ഒരു തലമുറ സ്വത്തിന് പുറകെ പോകുന്നവരല്ല പിന്നെ ഞങ്ങൾക്ക് മുമ്പുള്ള ഒരു തലമുറ എന്ന് പറഞ്ഞാൽ സ്വത്തും പണവും ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വത്തിൻ്റെ പേരിലാണ് കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ചേട്ടനനിയന്മാർ അതായത് ഇപ്പം ഒരു മൂന്നോ നാലോ മക്കളുള്ള വീട്ടിലാണെങ്കിൽ എന്നും വീട് ഭാഗം വയ്ക്കുമ്പോൾ സ്വത്തിൻ്റെ പേരിൽ അടിയുണ്ടാവുന്ന പ്രശ്നം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പ്രശ്നമായിട്ട് ചേട്ടനും അനിയനും തമ്മിൽ ഭയങ്കര അടിയായി ചേട്ടൻ അനിയനെ ഭയങ്കര തല്ലുകളൊക്കെ ആയി അനിയൻ ചേട്ടനെ ഭയങ്കര തല്ലലായി പോലീസുകാർ ഇടപെട്ടു രണ്ട് പേർക്കും ഇടയിൽ വന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി അങ്ങനെ ഭയങ്കര പ്രശ്നം ആയൊരു കേസായിരുന്നു അത് പിന്നെ അത് വീട്ടുകാർക്ക് ഇടയിൽ നിന്ന് തന്നെ സോൾവ് ആവുവാണ് ചെയ്തത് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയികഴിഞ്ഞ് വീട്ടുകാരെല്ലാം അതിൽ ഇടപെട്ട് അവർ തമ്മിലിങ്ങനെ തീരുമാനിച്ച് ഒരിക്കലും സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലോ ഇപ്പോൾ എന്താണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടവരല്ല അ എന്താണ് ചേട്ടനും അനിയനും ഒരേ രക്തമാണ് രണ്ടു പേരുടെയും രണ്ടു പേരുടെയും ശരീരത്തിലോടുന്നത് എന്ത് പ്രശ്നമുണ്ടായാലും സംസാരിച്ച് തീർക്കുന്നൊരു സമൂഹം തന്നെയാണ് നമുക്ക് വേണ്ടത് ഞാൻ ഈ കഴിഞ്ഞ ഇവരുടെ പ്രശ്നത്തിൽ ഞാൻ കണ്ടത് ഇതുതന്നെയാണ് അത്രയും വലിയ പ്രശ്നം ഉണ്ടായ പോലീസ് കേസ് വരെയായിട്ടും ആ പ്രശ്നം തീർന്നതെന്ന് പറയുമ്പം അവർ രണ്ടും അല്ലെങ്കിൽ അവരുടെ ഭാര്യ ആ ചേട്ടൻ്റെ രണ്ട് പേരുടെയും ഭാര്യ അവരുടെ കുടുംബവും സംസാരിച്ചപ്പോഴാണ് ആ പ്രശ്നം തീർന്നത് അപ്പം വേറെ തല്ലും പിടിയും കൊണ്ടൊന്നും അല്ല ഒരിക്കലും ഒന്നും തീരേണ്ടത് സംസാരിക്കുക സംസാരിച്ച് തന്നെയാണ് എല്ലാം തീരേണ്ടത് ഞാൻ കണ്ടൊരു ഇതെന്ന് പറയുന്നതും അതുപോലെ തന്നെ രണ്ടു പേരും സംസാരിച്ചാണ് അവരുടെ പ്രശ്നവും കഴിഞ്ഞത്